ഹലോ പറഞ്ഞോ ആരാണ് അതെ അതെ പറഞ്ഞോ ആ പറഞ്ഞോളൂ ആ പറഞ്ഞോ എപ്പോനു പ്ലാൻ ആക്കുന്നത് നെക്സ്റ്റ് മന്ത് ഇരുപത് വരെ ആ പത്ത് ശേഷം ആ ബേക്കൽ ഫോർട്ടുണ്ട് മാലിക് നഗർ ആ ബെസ്റ്റ് പ്ലേസ് ആണ് അത് എല്ലാം വി ആർ സി ആണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് മാലിക് നഗർ പിന്നെ ബേക്കൽ ഫോർട്ട് പറയുന്നത് ഇപ്പോൾ ഏഷ്യാസ് നമ്പർ വൺ ഇതാണ് ബേക്കൽ ഫോർട്ടെന്ന് പറയുന്ന ബേക്കൽ ഫോർട്ട് ബേക്കൽ ബീച്ചുണ്ട് അവിടെ റെഡ് മൂൺ ബീച്ച് നിങ്ങൾ പ്ലേസ് പ്ലേസ് എവിടെന്ന് പറഞ്ഞ് ഞ്ഞാല്

എർണാകുളത്തു നിന്ന്

ആ അത് എല്ലാം നമ്മൾ കൊടുക്കന്നത് തന്നെ ഫുഡ്ഡ് ആൻഡ് അക്കോമഡേഷൻ റൂമ് ഫുഡ്ഡ് നല്ല ക്വാളിറ്റി ഫുഡ്ഡ് ആണ് ഇപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ കൊടുക്കുന്നത് കോൾഡ് ഹെൽത്ത് ഫുഡ്ഡ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഫുഡ്ഡ് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ റൂമ് നമ്മൾ വൈസ്രോയിൽ ആണ് കൊടുക്കുന്നത് കാസർഗോഡ് ബെസ്റ്റ് ഇതാണ് ലോഡ്ജ് ആണ് വൈസ്രോയി ആ നിങ്ങൾ പ്ലേസ് ഒന്ന് പറയാമോ അത് ഇപ്പം നിങ്ങളെ പ്ലേസ് ആ നിങ്ങൾ കാസർഗോഡ് എത്തീങ്കി ബാക്കി ആ എറണാകുളത്തു നിന്ന് കാസർഗോഡ് എത്തീങ്കി ബാക്കി ഞാൻ നോക്കാം

ആ അവിടത്തെ ഓള് നിങ്ങളെ ഇല്ലേ നമ്മൾ ആടന്ന് ഇനിക്ക് ഇതാക്കുന്നുണ്ട് ട്രെയിൻ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ വന്നെങ്കിൽ അതിന് അതിൻ്റെ റേറ്റ് കുറയും ഫാമിലി ഇപ്പോൾ നിങ്ങൾ എത്ര ആൾ ഉണ്ടെന്ന് പറഞ്ഞത് അഞ്ച് പേർ അപ്പോൾ പെർ ഹെഡ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ആ ഫുഡ്ഡ് റൂമ് പിന്നെ നമ്മൽ ഇത് തന്നെ ട്രാവല് ഉണ്ട് ആ പ്രൈവറ്റ് നിങ്ങൽക്ക് ആയിട്ടുണ്ട് കാറുണ്ട് തരും ഈ ഡ്രൈവറ് വേണമെങ്കിൽ ഡ്രൈവറിന് തരും ഇല്ലെങ്കിൽ വിതൗട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഓട്ടിയിട്ട് പോവാം